പണ്ടത്തൊരു കാലം വെച്ച് നോക്കുവാണെങ്കിൽ നമക്കൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ പണ്ട് നമ്മൾ എന്താണ് ചെറുപ്പത്തിലായിരുന്നപ്പം നമ്മൾ കൂട്തലായിട്ടും ടീ വി കാണുക അതേപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കുക അങ്ങനെ ഒക്കൊരു ശീലാമായിരുന്നു നമ്മൾ നമുക്കുണ്ടായിട്ടുള്ളത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് കമ്പ്യൂട്ട്റ് വന്നു അപ്പം നമ്മൾ കൂടുതൽ സ്റ്റൈമ് ഇപ്പം ടീ വീന്നൊക്കെ മാറീട്ട് നമ്മളെന്താണ് കമ്പ്യൂട്ട്റൊക്കെയാ കാണുന്നത് ഒരു ഇതിലേക്ക് മാറി പക്ഷേ അപ്പത്തന്നെ ആണെങ്കിലും എന്താണ് നമുക്ക് ബാലരമ അതേപോലെ കളിക്കുടുക്ക അതേപോലെ കുഞ്ഞി കുഞ്ഞി പുസ്തകങ്ങൾ നമുക്കതിലെ ചിത്രകഥകൾ ഒക്കെ വായിക്കാൻ ഭയങ്കരമായിട്ട് ഒരു താല്പര്യമുണ്ടായിരുന്നു പിന്നതു കഴിഞ്ഞ് ഫോൺ മൊബൈൽ ഫോൺ വന്നപ്പത്തേക്കും കുറച്ചുങ്കൂടതിൻ്റെ ഇൻഫ്ലുവൻസ്സ് കുറഞ്ഞു നമുക്ക് പുസ്തകങ്ങൾ അതേപോലെ തന്നെ ചിത്രം വരക്കാൻ നമ്മൾ നമ്മടേതായിട്ടുള്ള എന്താണ് എന്താണ് കഴിവുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂട്തലായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ആയി നമ്മുടെ സ്പെൻഡിങ് ടൈമ് അതേപോലെ തന്നെ നമ്മൾ അതിലുള്ള ഗെയിംസ്സ് കളിക്കാൻ തുടങ്ങി പിന്നെ ടച്ച് ഫോണ് അതുപോലെയുള്ള മാറ്റങ്ങൾ വന്നപ്പം ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് നമ്മുടെ സംസാരിക്കുന്ന സമയം കുറയുക കേരളീയ സംസ്കാരംന്ന് മാത്രവല്ല പല പല സംസാരത്തിലും ഇങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം കേരളീയ സംസ്കാരം പറയുകാണെങ്കിൽ തന്നെ പല പല കലാരൂപങ്ങൾ നമ്മളിപ്പം പണ്ട് ഉൽസവങ്ങളിലാണെങ്കിലും പൂരപ്പറമ്പിലാണെങ്കിലും പള്ളിപ്പെരുന്നാളിനൊക്കെയാണെങ്കിൽ തന്നെ എന്താണ് കഥകളി തെയ്യം അതുപോലെ കുറെ കലാരൂപങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ നോക്കാണെങ്കിൽ മാജിക് ഷോയ്യ് ഡീ ജേയ്യ് അതേപോലെ കുറെ ഇൻഫ്ലുവൻസ്സുണ്ടായിട്ടുണ്ട് പണ്ടെന്ന് പറയണത് നമ്മുടെ കലാരൂപങ്ങളിലാണെങ്കിൽ നമ്മളിപ്പം ഡാൻസ്സ് കളിയ്ക്കാണെങ്കിൽ നമ്മൾ ഒരു ട്രെഡീഷണലായിട്ടുള്ള ഒരു ഡാൻസ്സാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കൾച്ചർലായിട്ട് നമ്മൾ കളിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി സിനിമാറ്റിക്കായിട്ടുള്ള കുറച്ചും കുടെ മോഡേണായിട്ടുള്ള പാട്ട്കൾ അത് നല്ല പോലെ ഇൻഫ്ലുവൻസ്സായിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മളെന്താണ് നമ്മുടെ ഒരു മലയാളം ലാങ്വേജിൽ നിന്ന് ഇപ്പം മലയാളം മൂവീസ് കാണുന്നതിന് നമുക്കൊരു താല്പര്യവില്ല നമ്മളിപ്പം കൂട്തലായിട്ട് കെ ഡ്രാമ കെ പോപ്പ് അതേപോലെ തന്നെ കുറെ സീരീസ്സ് ഇൻഫ്ലുവൻസ് അങ്ങനെ ഒരുപാട് കാലക്രമേണേന്ന് പറയുന്നത് നല്ല മാറ്റങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്